പാസ്പോർട്ട് ഓഫീസ് കേന്ദ്രം അല്ലേ ഞങ്ങൾ പുറത്തേക്ക് പോവാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു വിദേശം കൊറച്ച് സ്ഥലങ്ങളൊക്കെ പ്ലേസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ കൊച്ചിന് വിസ ഇതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഒരു ഒരു വയസ്സായിട്ടുള്ളു ആ അപ്പം അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ആ കോപ്പി ഉണ്ട് സോഫ്റ്റ് കോപ്പി മതിയോ അതോ അവിടെ ആരെങ്കിലും വന്നു തരണോ

ആ ജനന സർട്ടിഫിക്കറ്റിൻ്റെ ആ ഓക്കെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻസ് എന്തെങ്കിലും വേണോ ആ ആധാർ കാർഡ് ഉണ്ട്

ആ ഓക്കെ

വേറെ എന്തെങ്കിലും ഡോക്യമെൻസ് പാരൻസിൻ്റെ എന്തെങ്കിലും ഡോക്യമെൻസ് വേണോ എത്ര ദിവസം കൊണ്ട് കിട്ടുമായിരിക്കും രണ്ടു ദിവസം കൊണ്ട് ആ ഓക്കെ

അപ്പം സർട്ടിഫിക്കറ്റും ഇതുകൊണ്ട് വന്നാൽ മതി അല്ലേ ആ ആ ആ പാരൻസിൻ്റെയും ആ ഓക്കെ ആ ഓക്കെ ശരി എന്നാൽ